ഒന്ന് മൂന്ന് രണ്ടായിരം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിര രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരം ഒന്ന് ഒന്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്